ആ അതേ അതേ അതേ എപ്പം എപ്പം വേണ്ടതാണ് രാവിലത്തേക്കാണോ വൈകീട്ടത്തേക്കാണോ വൈകിട്ടത്തേക്കാ വൈകിട്ടത്തേക്ക് കോഫീ ഐറ്റങ്ങളാണോ അതോ സാധാ ഇത് അതോ ചിക്കനോ ബിരിയാണിയോ അങ്ങനെ

ആ മസാല ദോശയുണ്ട് നെയ് റോസ്റ്റ് ഉണ്ട് പൊറോട്ട ബീഫ് ഉണ്ട് പിന്നെ സാധാ ദോശയുണ്ട് ഇഡ്ഡലിയുണ്ട് ആ നല്ല ചായയുണ്ട് സൂപ്പർ ചായയാ പീരുമേട് ചായ പീരുമേട് ചായ മ്മ് നല്ല സ്ട്രോങാ ആ സ്ട്രോങ് ചായ ഏലക്ക ചായയുണ്ട് ഏത് ഐറ്റം വേണമെങ്കിലും ഉണ്ട് മ്മ് ഉണ്ട് ഉണ്ട് ബ്രെഡ് ഓംലെറ്റും ഉണ്ട്

അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ അല്ലല്ല എല്ലാം നോർമൽ എല്ലാം ഞങ്ങൾ സ്വന്തം മേയ്ഡാ മ്മ് ആ പുറമേയൊക്കെ ഉള്ളതാ ബേക്കറിയെല്ലാം ഉള്ളതാ അതെ അതെ അന്നന്ന് അന്നന്ന് അതെ അതെ എല്ലാം ചൂട് സാധനങ്ങളെ ഉള്ളൂ കുഴപ്പം ഇല്ല അതെ അതെ മ്മ് ഉണ്ടുണ്ട് കൂടുതലും നമുക്ക് ഇങ്ങനെ ബുക്കിങ്ങ് ആണ് ഓൺലൈനാ മ്മ് അതെ അതെ മ്മ് ഉണ്ടുണ്ട് പാർട്ടി ഉണ്ട് ആ നിങ്ങൾ പറയുന്ന സമയത്ത് തരും കാരണം അത് ഉണ്ടാക്കാനുള്ള സമയം വേണം ചൂട് വേണമെങ്കിൽ മ്മ് റേറ്റ് ഒക്കെ സാധാ ഒരോന്ന് വലിയ കൂടിയ റേറ്റ് ഒന്നും ഇല്ല

ആ എപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ട് മ്മ് മ്മ് ഞങ്ങൾക്ക് ബീരിയാണിയുണ്ട് ആ ഫ്രൈഡ് റൈസ് പിന്നെ നൂഡിൽസ് കുഴിമന്തി ആ എം ബിരിയാണിയുണ്ട് കുഴിമന്തിയുണ്ട് ആ കുഴിമന്തിയുണ്ട് എന്നാ വേണം എന്ന് പറഞ്ഞാൽ മതി ആ എങ്ങനെ വേണമെങ്കിലും ആകാം കലം ബിരിയാണി കലം ബിരിയാണി വേണമെങ്കിൽ കലം ബിരിയാണിയുണ്ട്

അത് നേരത്തെ പറയുന്നത് പോലെ ഏത് വേണമെങ്കിലും തരും

ഇന്നത്തേക്കാ ഏ ഓക്കെ ഓക്കെ എന്നതാ വേണ്ടത് ആ ഭക്ഷണം എന്നാ എന്നാ ഐറ്റം എന്നാ

പൊറോട്ടായ്ക്ക് കറിയെന്നാ ബീഫോ ആ ആ ഫ്രൈഡ് റൈസ് ചിക്കനും ഉണ്ട് മട്ടനും ഉണ്ട് ചിക്കനും മട്ടനും ഇഷ്ടമുള്ളത് വരിക ചിക്കൻ തന്നെ ഇഷ്ടമില്ലല്ലോ ആ ചൂടോടെ പായ്ക്ക് ചെയ്യാം ഒന്നാകെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ചാർജ്ജ് കൊടുത്താൽ മതി വീട്ടിൽ തരും മ്മ് അതേ അതെ അല്ലാതെ ഞങ്ങൾക്ക് ബേക്കറി ഉള്ളതല്ലേ ഞങ്ങൾക്ക് അന്നേരം ആണ് ഉണ്ടാക്കി തരിക ആ ഞങ്ങൾക്ക് കാറ്ററിങ്ങ് ഉള്ളതാ ഇവിടെ ഏതാ ഐറ്റം വേണ്ടത് ഓംലെറ്റ് ഉണ്ട് എന്നിട്ട് അത് എല്ലാ ഐറ്റവും ഉണ്ട് ബേക്കറി അല്ലേ അപ്പോൾ എല്ലാ ഐറ്റും ഉണ്ട് ആ കൊടുക്കും കൊടുക്കും ഞങ്ങൾ ബെസ്റ്റ് ബെസ്റ്റ് ബേക്കറിയാ പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറി മ്മ് മ്മ് ഏ അതേ അതെ അതെ അതെ

അല്ലല്ല ഞാൻ ഞങ്ങളുടെ ബെസ്റ്റ് ബേക്കറി ആ നിങ്ങൾക്ക് അറിയാ അറിയാൻ മേലായിരുന്നോ നമ്പര് നോക്കി വിളിച്ചതാ അല്ലേ ആ ആ അതുശരി ആ ആ നാളെ വൈകീട്ടത്തേക്ക്

ആ ആ കടയിൽ കടയിൽ വരുമോ വീട്ടിൽ തരണോ കടയിൽ വരുമോ വീട്ടിൽ തരണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ചായ കുടിച്ചിട്ട് പാർസൽ ആയി കൊണ്ട് പോയാൽ മതി

ആ ഓക്കെ ആ ശരി ശരി ശരി ഒരു തമാസവുമില്ല നേരത്തെ പറഞ്ഞാൽ സമയം പറഞ്ഞാൽ മതി ആ എന്നാൽ ശരി പത്ത് മിനിറ്റ് ആയി ഓക്കെ